ആറ് ഒന്ന് രണ്ടായിരത്തി ആറ് അഞ്ച് പത്ത് രണ്ടായിരത്തി പത്ത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിനാല് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രണ്ട് അഞ്ച് രണ്ടായിരത്തി രണ്ട്